മലയാള ഭാഷ സംസാരിക്കുന്നത് ഒരാൾ എന്ന നിലയില് എനിക്ക് അഭിമാനം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലോകത്ത് എവിടെ പോയാലും ഒരു മലയാളി എങ്കിലും ഉണ്ടാകും ഇതിപ്പോൾ എവിടെയാണെങ്കിലും നമ്മുടെ മലയാളികള് ഇല്ലാത്ത ഒരു സ്ഥലവും ഇപ്പം നമ്മുടെ ഇല്ല നമ്മുടെ സാ ലോകത്തില്ല അപ്പം നമുക്ക് മലയാള ഭാഷയാണ് ഇപ്പോൾ എന്താ സംസാരിക്കാനും എളുപ്പമുള്ളത് മലയാള ഭാഷ തന്നെയാണ് ഇപ്പോൾ കാർണ കാർന്നവന്മാരോടൊക്കെ നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷിൽ പോയി സംസാരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അവരോട് മലയാളത്തിലാണ് സംസാരിക്കേണ്ട അവർക്കും മലയാളം അറിയാം അപ്പം മലയാളത്തി സംസാരിക്കുന്നത് ആണ് ഏറ്റവും നല്ലത് പിന്നെ മലയാളത്തില് ഇഷ്ടമുള്ള വാക്കുകള് എന്തൊക്കെയാനെന്ന് വെച്ചാല് എന്താ നല്ല സന്തോഷകരമായി പറയുന്ന വാക്കുകള് വലിയ ഇഷ്ടമാണ് നമ്മള് എപ്പളും ഉപയോഗിക്കുന്ന വാക്കുകള് എന്താക്കാ പറയ് ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന വാക്കുകളൊക്കെ എപ്പളും നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അപ്പോൾ മലയാളി എന്ന നിലയില് എനിക്ക് അഭിമാനം തന്നെയാണ് മലയാള ഭാഷയോട് അതിന്റേതായ ഒരു സ്നേഹവും ബഹുമാനവും ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക സംസാരിക്കാനും എളുപ്പമുള്ള ഭാഷ മലയാളം തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന ഒരു ഭാഷ മലയാളമാണ് അതുകൊണ്ട് നമുക്ക് സംസാരിക്കാനും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഭാഷ തന്നെയാണ് മലയാളം എന്ന് പറയുന്നത്